ബെർത്ത്ഡേ പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ വെഡിങ് പാർട്ടി ഇങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളെനിക്ക് കൂടുതലായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് തകർക്കാനാണെനിക്ക് താല്പര്യം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാലത് നമ്മൾ ഒരു വേറൊരു ഫീല് തന്നെയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് സമയങ്ങളിലേക്ക് പാട്ട് ഡാൻസ് ഡീ ജെ പോലുള്ള ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബെർത്ത്ഡേ പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം അതുപോലുള്ള പാക്സ് ഓഫ് പ്രോഗ്രാംസ് ആഡ് ചെയ്തുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വേറൊരു വൈബ് തന്നെയാന്ന് പറയാൻ പറ്റും നമ്മൾ കൂട്ടുകാരൊക്കെയായിട്ട് പോയി തമാശയൊക്കെ പറഞ്ഞു പാട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പോയി എല്ലാം ചെയ്തുവരുമ്പോഴത്തേക്കും തന്നെ നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടുകാരുമൊക്കെയായിട്ട് പോവുന്നതും കൂട്ടുകാരായിട്ട് പോവുന്നതും നമുക്കത് എന്താ പറയുന്നത് അത് വേറൊരു ഇത് തന്നെയാണ്